ആ ഹലോ ആ ഇത് ആ ഫിഷ് ഏജൻസിയാണെ ആ ഫിഷ് മാർക്കറ്റ് ആണേ

ആ ഹാ ആ പിന്നെ നമുക്ക് ഉണ്ട് എല്ലാ ദിവസവും മീൻ എടുക്കുന്നുണ്ടെ അപ്പം ആഴ്ച്ചയിൽ മൂന്നു ദിവസത്തേക്ക് മതിയല്ലേ ആ അപ്പോൾ ഒരു ആ അഞ്ച് അഞ്ച് കിലോ അതുശരി ആ അഞ്ച് കിലോ വെച്ച് വേണ്ടിവരുമോ ദിവസവും അഞ്ച് കിലോ മീൻ വേണമായിരിക്കും അല്ലേ ആ ആ ആഴ്ചയിൽ മൂന്നു ആ ഓക്കെ ആ ആ അയില എന്തോ ചോദിച്ച് അയിലയ്ക്ക് അയില ആ അയില കിട്ടാറുണ്ട് ഞങ്ങൾ എടുക്കാറുണ്ട് അയിലയ്ക്ക് ആ കിലോ ആ മുപ്പത് പേർക്ക് അല്ലേ ആ ഒരു മൂന്നു കിലോ മതിയായിരിക്കും വറക്കാൻ ആ കൂടി ആ ഏ ആ ഏതൊക്കെ ദിവസമാ വേണ്ടത് ആ തരാം ആ വെള്ളി അല്ലേ ആ ശനി ആ ഓ ശരി ആ തിങ്കളും ബുധനും ശനി അല്ലേ മ്മ് അപ്പോൾ ആ കറി വെക്കാൻ അല്ലേ കറി വെക്കാനായി ചെറിയ മീനാണോ അതോ വലുതാണോ വേണ്ടത് മത്തി അങ്ങനെത്തെ ചൂട അങ്ങനെത്തെ സാധനങ്ങൾ എന്തെങ്കിലും അങ്ങനെത്തെ മീനാണോ വേണ്ടത് ആ മോതയോ അത് പറ്റുമായിരിക്കും അല്ലേ ആ ഇവിടെ ആ ആ വറ്റയുണ്ടേ വറ്റ ആ ആ വെളുത്ത വറ്റ ആ ദശ കട്ടിയുള്ളതാ പിന്നെ കാളാഞ്ചിയുണ്ട് ആ മറ്റേ കാളാഞ്ചിയുണ്ട് ആ ആ പീസ് ആക്കി ആ ആ തരാം ആ എന്നാൽ ആ

ആ ആ ഹാ ആ അതു ചെയ്യാം മത്തിക്ക് കിലോ മുന്നൂറ് ആണെങ്കിൽ ഒരു ഒരു കിലോ മുന്നൂറ് മ്മ് ആ ഹാ ആ കുഴപ്പം ഇല്ല തരാം കേട്ടോ ആ ആ അങ്ങോട്ട് ആ അങ്ങോട്ട് കൊണ്ട് തരണോ തരാം കേട്ടോ ഞങ്ങൾക്ക് ആ ആ മ്മ് ആ ആ ഹാ ആ ഇതെവിടെ ആയിട്ടാണ് ഈ ഹോസ്റ്റല് ഹോസ്റ്റൽ എവിടെ ആയിട്ട് വരും മ്മ് മ്മ്

ആ പൈസ എങ്ങനെ ആ ആ പൈസ എങ്ങനെയാ ഗൂഗിൾ പേ ആണോ അതോ ഗൂഗിൾ പേ ചെയ്യോ അല്ലെങ്കിൽ തന്നാൽ ക്യാഷ് ആ ആ ആ ആ എങ്ങനെയാ മാസത്തിൻ്റെ അവസാനം ആണോ അതോ അന്നു തന്നെ തരുമോ മ്മ് ആ ഹാ ആ ഓക്കെ ആ കുഴപ്പം ഇല്ല ആ മാസത്തിന്റെ അവസാനം ആണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പം ഇല്ല കേട്ടോ ആ ആ ആ ആ ഹ ആ ഹാ ആ ശരി ആ ഞങ്ങൾ ഫ്രഷ് എല്ലാദിവസവും ഞങ്ങൾ എടുക്കുന്നുണ്ട് മീന് ഫ്രഷ് മീനാ കേട്ടോ കടപ്പുറത്തുനിന്ന് ആ കടപ്പുറത്തുനിന്ന് നേരിട്ട് എടുക്കും ആ ആലപ്പുഴ ആലപ്പുഴയിൽനിന്ന് ഞങ്ങൾ പോയി എടുക്കുകയാണെ ആ എപ്പഴത്തേക്ക് എത്തിക്കണം എത്ര മണി സമയത്താ ആറുമണി ആവുമ്പോൾ എത്തിച്ചാൽ മതിയോ ആ ഓ ശരി ആ പത്തുമണിക്ക് എത്തിക്കാം കേട്ടോ ആ ഹാ ആ ആ ഹാ ആ അറിയിക്കാം അറിയിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ

ആ ശരി

ശരി എന്നാൽ ആ ശരി മ്മ്